ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ജിയോൻ്റെ സിമ്മാണ് പിന്നെ ഒരു റീചാർജെന്ന് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് പോലെയാണ് ഞാൻ റീചാർജ് ചെയ്തു കൊണ്ടിരിക്കുന്നത് പിന്നെ പണ്ട് കാലത്തെന്ന് പറഞ്ഞ് കഴിയുമ്പം മൊബൈൽ ഫോൺ അങ്ങനത്തെ ഈ ഇന്നത്തെ പോലെ സ്മാർട്ട് ഫോണൊന്നും ഉണ്ടായിരുന്നില്ല പണ്ടെന്ന് പറയുമ്പം ചെറിയ എന്തേലൊരു ഫോൺ ഉണ്ടേലൊണ്ട് അതും ഏതേലക്കെ ചില വീട്ടുകളില് അത് കണ്ടായിരുന്നു അതുകൊണ്ടെന്താ ഇപ്പം ആരേലും നമ്മളിപ്പം ആരേലും പണ്ട് കാലത്ത് മരിച്ച് കഴിഞ്ഞാൽ അത് അറിയിക്കണങ്കി കത്ത് വഴിയായിരുന്നു എന്ന് പറയുമ്പം രണ്ട് മൂന്ന് ദിവസം എടുക്കും അത് കിട്ടണങ്കി അടക്കക്കെ കഴിഞ്ഞ് കഴിയുമ്പളായിരിക്കും നമുക്ക് ചെലപ്പ കിട്ടുന്നോള് ഇപ്പോന്ന് പറയുമ്പം അങ്ങനയൊന്നുമല്ല നമുക്ക് ഇപ്പം എന്തേലും ഒരു കാര്യം അറിയണമെന്നൊ എന്തേലും ഉണ്ടങ്കിൽ നമുക്ക് നേരെ എന്താ ഫോണെടുക്കുക അതില് സെർച്ച് ചെയ്താൽ മതി നെറ്റൊണ്ടങ്കിൽ ഫോണെടുക്കുക സെർച്ച് ചെയ്യുക നമുക്ക് ആവശ്യം ഉള്ള കാര്യം കിട്ടും ഇപ്പം ഉദാഹരണത്തിന് ഒരാളെ വിളിക്കണമെങ്കിൽ ആണെങ്കിൽ സാധാ കോള് ഉണ്ട് വീഡിയോ കോള് ഉണ്ട് ചാറ്റ് ചെയ്യാം അങ്ങനെ ഒക്കെ ചെയ്യാം എന്തേലുമൊരു അത്യാവശ്യത്തിന് ഇപ്പം ഒരാളെ വിളിക്കണമെന്ന് വച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടന്ന് വിളിക്കാം പണ്ട് കാലത്ത് അതൊന്നും നടക്കത്തിണ്ടായിരുന്നില്ല ഒരു ഹോസ്പിറ്റല് കേസ് അങ്ങനെ എന്തേലൊക്കെ വന്ന് കഴിഞ്ഞാൽ ആരേയും വിളിക്കാൻ പറ്റില്ല ഒന്നും പറ്റത്തില്ലായിരുന്നു ഇപ്പോന്ന് പറഞ്ഞ് കഴിയുമ്പം നമ്മുടെ ക കയ്യില് തന്നെ ഉണ്ട് വേണമെങ്കിൽ ഇപ്പം എടുത്ത് വേണമെങ്കിൽ എന്തേലും അത്യാവശ്യമുണ്ടേൽ ഒരാളെ വിളിക്കാം അങ്ങനേ ഉള്ളൊരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഉള്ളത്